ഞാൻ ഒരു തയ്യല്ക്കാരിയാണ് ഞാൻ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങള് നിര്മ്മിക്കാന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ തീര്ച്ചയായിട്ടും പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രം നിര്മ്മിക്കാന് ശ്രമിച്ചിട്ടുണ്ട് അത് ചട്ടയും ആണ് ചട്ട എന്ന് പറയുന്ന നമ്മുടെ വലിയ അമ്മച്ചിമാരൊക്കെ തയ്ച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ആ ചട്ട എന്ന് പറയുന്ന കാര്യം തയ്ച്ചിട്ടുണ്ട് ഞാൻ തയ്ച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ തയ്യലായിരുന്നു തയ്ക്കാറുണ്ടായിരുന്നത് കൈ കൊണ്ട് തയ്ക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒക്കെ ചെറിയ കാലങ്ങളിൽ ഞങ്ങൾക്ക് മെഷീൻ ഉണ്ടായിരുന്നു എന്നാൽ അത് കാൽ കൊണ്ട് ചവിട്ടി ബെല്റ്റ് ഒക്കെ ഇട്ട് വളരെ അധികം ചിലപ്പം ബെല്റ്റ് ഒക്കെ പൊട്ടിപ്പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് പിന്നീട് ഇപ്പം ഇപ്പം ഞാന് തയ്ക്കുന്നത് അത് ഇലക്ട്രോണിക് മെഷീനിലാണ് ഇപ്പോൾ ഞാന് തയ്ക്കാറുള്ളത് എനിക്ക് തയ്യൽ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തയ്യൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പുതിയ പുതിയ വസ്ത്ര തയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്

അതുപോലെ തന്നെ ചുരിദാറുകൾക്കൊക്കെ വളരെയധികം വ്യത്യസ്തത കൊണ്ട് വരാനക്കെ ഞാന് ശ്രമിക്കും അതുപോലെ കുഞ്ഞുങ്ങള്ക്കൊക്കെ ഉടുപ്പുകൾ തയ്ക്കാനായിട്ട് ബ്ലൗസ് പല രീതിയിലുള്ള ബ്ലൗസ് ഇപ്പം പണ്ടൊക്കെ ബാക്ക് ഓപ്പൺ ഒക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്ക് ഓപ്പൺ ഇടയ്ക്ക് പോയിരുന്നു എന്നാലിപ്പം അത് ബാക്ക് ഓപ്പൺ അതുപോലെ തന്നെ പ്രിന്സസ്സ് കട്ട് എന്നിവയിലേക്ക് ഇപ്പം പോയിട്ടുണ്ട് ആ രീതിയിലൊക്കെ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാല് ബോയ്സിന്റെ അധികം ഡ്രസ്സുകൾ ഞാന് തയ്ക്കാറില്ല അങ്ങനെ തയ്ക്കുന്നതിൽ വളരെയധികം ഇഷ്ടം കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാന്